ചിത്രകലയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് സാധാരണയായിട്ട് സംഭവിക്കുന്ന വീഴ്ചകള് അവര് വരയ്ക്കാനൊക്കെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവര് ഉദ്ദേശിച്ച ചിത്രങ്ങള് തന്നെ അത്ര നല്ല വൃത്തിയില് പെർഫെക്ഷനില് കിട്ടണം എന്നൊന്നും ഇല്ല അതൊക്കെ ഒരുപാട് പരിശീലനത്തില് കൂടെയൊക്കെയാണ് മാറ്റാൻ പറ്റുവുള്ളൂ കുറേ വരച്ച് കഴിയുമ്പഴാണ് ശരിയാവുകയുള്ളു അപ്പോൾ എല്ലാവരുടേയും സപ്പോർട്ടൊക്കെ ഈ കലയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഒരുപാട് ആവശ്യമാണ് ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ലോണം പരിശീലിക്കണം എത്രത്തോളം പരിശീലിക്കണം ചോദിച്ച് കഴിഞ്ഞാല് കഴിയുന്നത്ര നല്ലോണം വരയ്ക്കാനും അതിൽ തന്നെ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതില് തന്നെ ഇരുന്ന് വരയ്ക്കാനും അത്രത്തോളം ശ്രദ്ധ കൊടുത്ത് അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് വരയ്ക്കാനൊക്കെ പറ്റുകയുള്ളു അതിനൊക്കെ ഒരുപാട് ടൈമൊക്കെ എടുക്കും നല്ല പരിശീലനം ഒക്കെ അതിന് ആവശ്യമായിട്ടുണ്ടാവും അപ്പം നല്ല സമയം എടുത്താണ് ഒരു നല്ല കലാകാരനൊക്കെ ആകാനായിട്ട് സാധിക്കുകയുള്ളു